എനിക്ക് മലയാളം ആദ്യം മുതലേ എഴുതാനും വായിക്കാനൊക്കെ നന്നായി അറിയാം കാരണം ഞാന് ആശാന് കളരിയിൽ പഠിച്ച കാലം മുതൽ നല്ലതായിട്ട് മലയാളം എഴുതുകയും എഴുതാന് തുടങ്ങിയ ആ സമയം മുതൽ എനിക്ക് നന്നായി എഴുതാനും വായിക്കാനും നല്ലതായിട്ട് അറിയാം ഇപ്പോഴും ഞാന് നല്ല രീതിയിൽ മലയാളം എഴുതും മലയാളം സംസാരിക്കും ഒക്കെ ചെയ്യുന്നുണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ എന്റെ മക്കളെ നല്ല രീതിയില് മലയാളം പഠിപ്പിച്ച് അവർ രണ്ടുപേരും നല്ലതുപോലെ മലയാളം വായിക്കുകയും എഴുതുവേം ഒക്കെ ചെയ്യും നല്ല നല്ല രീതിയിലാണ് അവർ മലയാളം എഴുതുന്നത് ഒരു കുഴപ്പവും ഇല്ല ഞങ്ങൾ കുഞ്ഞുന്നാൾ മുതൽ നല്ല രീതിയിലാണ് മലയാളം ഞങ്ങൾ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത് അതുകൊണ്ട് ഞങ്ങൾക്ക് മലയാളം എഴുതാനും വായിക്കാനും സംസാരിക്കാനും ഒക്കെ നല്ല രീതിയിൽ നല്ല നല്ലതുപോലെ ഞങ്ങൾക്ക് മലയാളം എഴുതാനൊക്കെ അറിയാം ഞങ്ങൾ അതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല മലയാളം ഏത് അക്ഷരം പറഞ്ഞാലും എഴുതാനും ഏത് അക്ഷരം പ തന്നാലും ഞങ്ങൾ വായിക്കാനും ഒക്കെ ഞങ്ങൾക്ക് നല്ല ഇഷ്ടവുമാണ് നമുക്ക് നല്ല നല്ലതുപോലെ അറിയുകയും ചെയ്യാം ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് മലയാള അക്ഷരത്തോട് നേരിടേണ്ടി വന്നിട്ടില്ല കുഞ്ഞുന്നാൾ മുതലേ ഞങ്ങൾ നല്ല രീതിയിലാണ് നല്ല നല്ല രീതിയിൽ എഴുതി നല്ല പഠിച്ച് നല്ല രീതിയിൽ ഞങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഞങ്ങളുടെ മലയാളത്തിന്റെ ഈ ഒരു രീതിയിൽ ഞങ്ങൾക്ക് വായിക്കാനും എഴുതാനും ഒക്കെ നല്ല സ് നല്ല രസമായിട്ട് തോന്നുന്നുണ്ട് നല്ല രീതിയിൽ ഞങ്ങൾക്ക് നല്ല ഒരു അറിവാണ് മലയാളം എഴുതാനും വായിക്കാനും ഞങ്ങൾക്ക് കുഞ്ഞുന്നാൾ മുതലേ കിട്ടിയിരിക്കുന്നത് കിട്ടി നല്ല ഒരു അറിവാണ്